വായനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥേൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു മെയ് അവസാനം ആവുമ്പോഴേക്കും കാലവർഷം തുടങ്ങും മഴക്കാലം തുടങ്ങും അത് കർക്കിടകമൊക്കെ ആവുമ്പോഴെക്കും കുറച്ച് അധികമായി മഴ തുലാം കർക്കിടകത്തിലാണ് മഴ കൂടുതൽ നമുക്ക് കിട്ടുക അത് കഴിഞ്ഞ് ഒരു സെപ്റ്റംബറൊക്കെ ആവുമ്പോഴെക്കും മഴ ഏകദേശം കുറഞ്ഞ് ഒരു സെപ്റ്റംബർ അതായത് ഒക്ടോബർ നവമ്പർ ഡിസംബർ മാസംന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് അപ്പം നമുക്ക് ആ സമയത്തൊക്കെ നമ്മുടെ രീതീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെയുണ്ടല്ലോ പച്ചക്കറികളൊക്കെ നടാൻ പറ്റിയ സമയമാണ് ആ ഒരു തണുപ്പ് കാലം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജെനുവരി ജെനുവരിയോടെയെ ഉണ്ടാവുട്ടോ തണുപ്പ് ജനുവരീലും നമുക്ക് അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥ തന്നെയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല രീതിയിൽ വെയിലാണ് നല്ല രീതിയിലുള്ള വെയിൽ ഇടക്ക് മാർച്ച് മാസം അവസാനത്തോടുകൂടി വേനൽ മഴ പെയ്യാറുണ്ട് എങ്കിലും നല്ല വെയിലായിരിക്കും ഇടിയോടു കൂടിയുള്ള വേനൽ മഴയ്ക്ക് സാധ്യതയുള്ള മാസമാണ് ഏപ്രിൽ അതായത് മാർച്ച് ഏപ്രിൽ മാസം